കുടുംബജീവിതത്തെ സാങ്കേതിക സാങ്കേതിക വിദ്യ വല്ലാതെ തടസപ്പെടുത്തുന്നുണ്ട് കരണമെന്നുവെച്ചിട്ടുണ്ടേൽ ഒന്നാമതു തന്നെ ഫോൺ ആണ് കാരണം കരണമെന്നുവെച്ച ഇപ്പൊൾ മക്കൾ ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കുമ്പോൾ ഫോൺ കൊടുക്കുകയും അത് കാർട്ടൂണും വീഡിയോയും ഒക്കെ കാണിച്ച് അവരെ ഫോൺ കാണിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊൾ അവർക്ക് അവരുടെ ചിന്താഗതിയും ബുദ്ധി ബുദ്ധി കുറവ് അങ്ങനെ ഒക്കെ സംഭവിക്കാൻ ചാൻസുണ്ട് പിന്നെ ഉള്ളത് ടിവിയാണ് ടിവി എന്ന് വെച്ചിട്ടുണ്ടേങ്കില് ടിവി സീരിയല് സിനിമകൾ അങ്ങനെ ഒക്കെ എപ്പോളും കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾടെ കുടുംബത്തിൽ എന്താന്ന്വെച്ചാല് സംസാരം കമ്മ്യൂണിക്കേഷൻ കുറവാവുകയും ഇതിനകത്തു ടിവിയിലും ഫോണിലും അഡിക്ട ആകുകയും ഒക്കെ ചെയ്യുന്ന അപ്പൊൾ പരസ്പരം സംസാരിക്കുന്നില്ല എപ്പോളും ഇതിൽ തന്നെ നോക്കിനിക്കുമ്പോൾ എന്തായാലും സാങ്കേതിക വിദ്യ കാരണം തടസപ്പെടുകയാണ് ചെയ്യുന്നത് കുടുംബ ജീവിതം